ഈ ഫോണിൽ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല ക്ലാരിറ്റി ആണ് അതുപോലെ തന്നെ ബാക്ക് ക്യാമറ ആണെങ്കിലും ഫ്രണ്ട് ക്യാമറ ആണെങ്കിലും രണ്ടും സെയിം നല്ല ക്ലാരിറ്റി ആണ് അതുപോലെ തന്നെ ചാർജ് നമുക്ക് ഒരുപാട് നേരം കിട്ടും പിന്നെ വീഡിയോ ഒക്കെ കാണണ സമയത്ത് നല്ല ക്ലിയർ ആയിട്ട് കാണാം നല്ല ക്ലാരിറ്റി ഉണ്ട് അതുപോലെ തന്നെ സൗണ്ട് സിസ്റ്റം നല്ലതാണ്